ഇപ്പോൾ വസ്ത്രങ്ങൾ കഴുകാൻ കൂടുതലായിട്ട് ഞാൻ അതായത് ഇപ്പോൾ വാഷിംഗ് മിഷീനിലാണ് കൂടുതലയിട്ടും യൂസ് ചെയ്യുന്നന്നത് അപ്പം നല്ല രീതിയിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വാഷിംഗ് മിഷീനിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് കാരണമെന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഈ ബക്കറ്റിലാകുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് വട്ടം കുത്തിപ്പിഴിയാറില്ല അതായത് ഇപ്പോൾ അലക്കിക്കഴിഞ്ഞ തുണിയിൽ സോപ്പും പതയും അങ്ങനത്തെ കാര്യങ്ങളിപ്പോൾ സോപ്പു പൊടിന്റെ പതയോ കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിട്ട് നമ്മൾ രണ്ട് മൂന്ന് വട്ടം കുത്തിപ്പിഴിയും അപ്പോൾ അതിനു അധികം വെള്ളവും കാര്യങ്ങളൊന്നും ചിലവാവില്ല കാരണെന്താ വെച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം നമ്മൾ കുത്തിപ്പിഴിഞ്ഞ് കഴിഞാൽ അധികം വെള്ളത്തിലൊന്നും ആയിരിക്കൂല്ല കുത്തിപ്പിഴിയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വട്ടം പിഴിഞ്ഞാലും വലിയ രീതിയിലുള്ള വെള്ളം കാര്യങ്ങളൊന്നും ചിലവാവില്ല പക്ഷേ വാഷിംഗ് മിഷീനിലങ്ങനല്ല നമ്മൾ കൂടുതലും വീണ്ടും വീണ്ടും ഇട്ട് കറക്കുന്നതിനനുസരിച്ച് വെള്ളം വല്ലാണ്ട് പാഴായിക്കൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ അല്ലാത്ത കാലം അതായത് മഴക്കാലത്ത് നമ്മളിത് തുണി ഉണങ്ങാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടും ടെറസിന്റെ മണ്ടേൽ കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ ആദ്യമേ ഈ വാഷിംഗ് മിഷീനിൽ ഡ്രയിൻ ചെയ്തിട്ട് വേണം നമ്മളാ ടെറസിന്റെ മണ്ടേലിടാൻ അപ്പോൾ വേഗം ഉണങ്ങിക്കിട്ടാനും ഇതിനൊക്കെ എളുപ്പമാണ് പുറത്തെന്തായാലും മഴയായിരിക്കും അപ്പോൾ ആ ഇതിന്റെ കാറ്റു കൊണ്ടിട്ട് വസ്ത്രങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണങ്ങിക്കോളും